ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മറ്റേ റിപ്പ്ട് ജീന്സ് ഓഡറ് ചെയ്തതായിരുന്നു ഓഡറ് ചെയ്തിട്ട് അതിന് അത്യാവശ്യം എത്രയാ എണ്ണൂറ്റി സംതിങ്ങായിരുന്നു വന്നത് ഒരു സ്കൈ ബ്ലൂ കളറ് ആണ് ഓർഡറൊക്കെ ചെയ്തത് സ്മാള് സൈസ് കാര്യങ്ങൾ ഇങ്ങനെ റിവ്യൂ ഒക്കെ അത് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന റിവ്യൂ നോക്കിയപ്പോൾ നല്ല റിവ്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ആ ജീന്സ് ഞാൻ ഓഡറ് ചെയ്തത് ഓഡറ് ചെയ്ത് അതെത്രയാ ഇത്ര ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാ വന്നത് വന്ന് കഴിഞ്ഞ് സാധനം നോക്കിയപ്പം ഞാൻ ഓഡറ് ചെയ്ത സാധനവും വന്ന ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു ഞാൻ ഓഡർ ചെയ്തത് ജെസ്റ്റ് മുകളിങ്ങനെ എന്താ ഇലാസ്റ്റിക്ക് ഇലാസ്റ്റിക് ടൈപ്പല്ല നോര്മ്മല് ടൈപ്പ് അങ്ങനെത്തെയൊരു ജീന്സ്സും താഴോട്ട് റിപ്പ്ഡ് ആയിട്ടുള്ളതായിരുന്നു ഇത് വന്നത് മുകളിൽ ഇലാസ്റ്റിക്കുള്ളത് താഴെ അതുപോലെത്തന്നെ ആങ്ക്ളിന്റെ അവിടെ ഇലാസ്റ്റിക്ക് അങ്ങനെ ഒരു ടൈപ്പ് ലൂസ് ടൈപ്പ് ഒരു സാധനമാണ് എനിക്ക് ജീന്സാ ജീന്സ് വന്നത് വളരെ മോശമായിരുന്നു അതുപോലത്തന്നെ കളറാണെങ്കിൽ ഞാൻ സ്കൈ ബ്ലുവാണ് ഓഡ്റ് ചെയ്തത് എനിക്ക് വന്നത് ഡാര്ക്ക് ബ്ലൂ കളറ് രണ്ടും രണ്ടു വ്യത്യാസമുള്ള സാധനങ്ങളാണു വന്നത് അതുകൊണ്ട് ഓണ്ലൈനിൽ വാങ്ങിച്ചിട്ട് ഒരബദ്ധം ആദ്യമായിട്ട് പറ്റി